കലയ്ക്കും കരകൗശലത്തിനും ഒരു നാടിൻ്റെ അഭിമാനം ആകാൻ പറ്റുമോ എന്നു ചോദിച്ചാൽ ഇന്ത്യ എന്ന രാജ്യം എടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് കലയുമായി ബന്ധപ്പെട്ട തൊഴിലുകളോ അല്ലെങ്കിൽ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ആണ് ഇന്ത്യയിലെ ഒരുപാട് തനതായ ഗ്രാമീണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മാസ വരുമാനം ലഭിക്കുന്നതൊക്കെ ഈ കരകൗശല വിദ്യകൾ കൊണ്ടും കല കലകൾ കൊണ്ടും ആണ് ഇന്ത്യയുടെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്ന ഒരു കാര്യമാണ് കരകൗശലങ്ങൾ എന്നു പറയുന്നത് ഇപ്പോൾ കോവളത്ത് പോയാലും വർക്കലയിൽ പോയാലും പോകട്ടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ തന്നെ നമുക്ക് ഒരുപാട് ക്രാഫ്റ്റുകളും കാര്യങ്ങളും ആളുകൾ വിൽക്കാൻ വേണ്ടി കൊണ്ടു വെച്ചിരിക്കുന്നത് നമുക്കു കാണാൻ കഴിയുന്നതാണ് അപ്പോൾ കേരളത്തിലെ തിരുവനന്തപുരത്തു തന്നെ ഈ മൂന്നു സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് കരകൗശല സാധനങ്ങളും കല കരകൗശല സാധനങ്ങളാണ് അപ്പോൾ അതു വെച്ചു നോക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഒരു നാടിനു ഏറ്റവും കൂടുതൽ അഭിമാനമുണ്ടാക്കുന്ന കഴിയുന്ന ഒന്നു തന്നെയാണ് ഇതെന്നും ഞാൻ വിശ്വസിക്കുന്നു ഖാദി എന്നു പറയുന്ന ഒരിനം തുണി അതൊക്കെ ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പണ്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പോൾ അതിനു മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിൽ മാറ്റങ്ങൾ അങ്ങനെ വലുതായി ഒന്നും വരുന്നതും ഇല്ല അപ്പോ എനിക്കു തോന്നുന്നു ഒരു നാടിനെ ഏറ്റവും കൂടുതൽ അഭിമാനം ഉണ്ടാക്കുന്നത് ഇതുതന്നെയാണ് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഓൾ ഞാൻ നേർത്തേ പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ നാടിൻ്റെ നാടിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ കലാരൂപങ്ങളിലൂടെയും അവർ ചെയ്തു വെച്ചിരിക്കുന്ന ക്രാഫ്റ്റുകളിലൂടെ ഒക്കെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കു തോന്നുന്നു നമുക്ക് അഭിമാനിക്കാൻ എന്തുകൊണ്ടും നല്ലത് ആണത്